ഞാൻ രണ്ടു മൂന്നു ദിവസം മുമ്പൊരു പാൻട് വാങ്ങീന് അത് വാങ്ങിയെനിക്ക് മുതലായിട്ടില്ല അതിൻ്റെ കളറൊക്കെ ആകെ ഇളകിപ്പോയി രണ്ടു തിരുമ്പ് തിരുമ്പിയപ്പത്തേതതിൻ്റെ കുടുക്കൊക്കെ പൊട്ടിപ്പോയേന് പിന്നെ അത് കയറിയിട്ടാണ് വന്നതത് ഞാനുദ്ദേശിച്ച പാൻടല്ലച്ച് കിട്ടിയത് കളറൊക്കെ വേറെയായിരുന്നു അതിൻ്റെ സൈഡൊക്കെ ആകെ എന്തോ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു ചെളിയൊക്കെ പിടിച്ചാണ് വന്നത് അതാകെ നൂലൊക്കെ പിന്നി കിടക്കീനി അത് രണ്ടായിരം റുപ്പ്യക്കടുത്ത് വാ രണ്ടായിരം റുപ്പ്യ കൊടുത്തു വാങ്ങിയ പാൻടാണത് ഇരുന്നൂറ് റുപ്പിയക്കുള്ള മുതൽ മേടിച്ച് ഇരുന്നൂറ് റുപ്പിക്കുള്ള ഇല്ലത്